എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കളി ഷട്ടിലാണ് ഞാൻ രാവിലെ തന്നെ കളിക്കാൻ പോണത് ഷട്ടിലാണ് ഭയങ്കര രസമുള്ളൊരു കളിയാണത് നാല് പേരായിട്ടും കളിക്കാം രണ്ടു പേരായിട്ടും കളിക്കാത് അത് കളിക്കുമ്പോഴുണ്ടാകുന്നൊരു രസം വേറെ കളികളിൽ നിന്ന് നമുക്ക് കിട്ടില്ല എനിക്ക് ഏറ്റവും എനിക്ക് ഈ ഷട്ടിലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് ലീ ജോൺ വിക്ക് എൻ്റെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഷട്ടിൽ പ്ലെയറാണ് അൻഷാദ് അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളിയാണ് ഫുട്ബോൾ ഫുട്ബോളെന്നു പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഏറ്റവും ആവേശകരമായ ഒരു കളിയാണ് ഫുട്ബോൾ എനിക്കും ഏക്കം ഇഷ്ടപ്പെട്ടൊരുകളിയും കൂടിയാണത് അതേപോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഫുട്ബോൾ കളികൾ ഉണ്ടാകാറുണ്ട് അതെല്ലാം ഞാൻ കാണും പോകാറുണ്ട് എനിക്ക് ഈ വേൾഡ് കപ്പിൽ അർജൻടീന കപ്പടിച്ചേലെനിക്ക് വളരെധികം സന്തോഷമുണ്ട് എൻ്റെ ടീമാണ് അർജൻടീന എനിക്ക് ഫുട്ബാളിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് മെസ്സി അതേപോലെ കുറേ ഫുട്ബോൾ പ്ലെയേഴ്സിനെ എനിക്കറിയാം എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുട്ബോൾ കീപ്പറാണ് ചെക്ക്